ഹലോ അ ജാസ്മിൻ ടീച്ചറല്ലേ ഞാന് എബെലിൻ്റെ പേരന്റ് ആയിരുന്നു എബെലിന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില് ചേരുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ടീച്ചര് തിരക്കിലാണോ അതെയല്ലെ അവനെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇതിൽ എന്തെങ്കിലും ചേർന്ന് കഴിഞ്ഞാല് അതിനൊന്ന് സമയം കൊടുത്തുകഴിയുമ്പോഴത്തേക്കും സ്റ്റഡീസിനെ ബാധിക്കുമോയെന്നൊരു ഡൗട്ടുണ്ട് അപ്പോള് ഞാനത് അതെ അതെ അതെയല്ലെ ആ അതെയല്ലെ അതെയല്ലെ അവന് ഞാൻ ഇപ്പോഴേ പാട്ടും ഡാൻസുമൊക്കെ അവന് ഓക്കേയാണ് അപ്പോള് ഏതാണ് കംഫോർട്ടബിളെന്ന് എനിക്കുമറിയില്ല ഞാന് അപ്പോള് അവനോട് ചോദിച്ചപ്പോള് അവന് രണ്ടും വേണമെന്നാണ് പറഞ്ഞത് അപ്പോള് രണ്ടും കൂടെയാകുമ്പോഴത്തേക്കും ഭയങ്കരം ബുദ്ധിമുട്ടാകും ടീച്ചറിനെന്താണ് തോന്നുന്നത് അവന് ഏതായിരിക്കും കുറച്ചുംകൂടെ സ്യുട്ടാകുന്നത് അതെ അതെ സ്കൂളില് അത് ഓക്കെയാണാ സ്കൂളില് പ്രാക്റ്റീസൊക്കെ ചെയ്യാന് സൗകര്യമുണ്ടോ ആ അതെയല്ലെ അതെ അതെ അ അതെയല്ലെ അതെ ആ അ ഒരു ദിവസമേയുള്ളൂ അല്ലെ സ്കൂളില് അതെയല്ലെ

അതെ അതെ അ അവനെന്നോട് ഇപ്പോള് കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ പിള്ളേരും ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോള് ഞാൻ പറഞ്ഞു നോക്കട്ടെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോള് ഞാൻ ടീച്ചറിനോടുംകൂടെയൊന്ന് ചോദിച്ചിട്ട് ഇപ്പോള് വീട്ടിലാണെങ്കിലും ഞാന് കുറച്ചു സമയമല്ലെ കാണുന്നുള്ളൂ നിങ്ങള് കൂടുതല് സമയം കാണുന്നുണ്ട് അപ്പോഴറിയാമല്ലോ വേറെ പിള്ളേരുടെ കൂടെയാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കുമല്ലോ വീട്ടിലേതിനെക്കാളും അതെ അതെ അതെ ആ അതെ മ്മ് അപ്പോള് പുറത്താണെങ്കില് ഒരു ദിവസമേ കാണുകയുള്ളൂവായിരിക്കുമല്ലെ ആ ഹ്

അ അതെ ആ ശരിയാണ് അതെ അതെ ആ അപ്പോള് അങ്ങനെ ചെയ്യാമല്ലെ ആ അതെയല്ലെ എന്നോട് കുറേ ദിവസമായി ചോദിക്കുന്നുണ്ട് അപ്പോള് ഞാനിങ്ങനെ ഇങ്ങനെ അതിങ്ങനെ വെയ്റ്റിംഗ് ലിസ്റ്റില് ഇട്ടിരിക്കുകയായിരുന്നു എല്ലാ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് അല്ലാതെ ഞാനിപ്പോഴൊരു ഡിസിഷനെടുത്താലും ചിലപ്പോള് ഇനി അവൻ്റെ സ്റ്റഡീസിനെയൊക്കെ ബാധിച്ചുകഴിഞ്ഞാല് പിന്നെ പാടല്ലേ ഒന്നാമത് കുറച്ച് കുഴപ്പമില്ലാതെ പഠിക്കുന്നുണ്ട് അപ്പം ഇതുകുടെയാകുമ്പോഴത്തേക്കും അ പഠിത്തം ഉഴപ്പുമോയെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അതെയല്ലെ അതെ അതെ മ്മ് അതെയല്ലെ അ അതെയല്ലെ അ ആ എന്നാല് ഓക്കേ ടീച്ചര് താങ്ക് യൂ ഓക്കേ അ